ഞാനെന്റെ ഫ്രണ്ട് റെക്കമെന്റ് ചെയ്തു കൊണ്ട് ഒരു ഷാമ്പു വാങ്ങിയിട്ട് ഉണ്ടായിരുന്നു അത് ഷാമ്പു ഉപയോഗിച്ചതിനു ശേഷം എനിക്ക് ഇല്ലാത്ത ഹെയർ പ്രോബ്ലംസ് ഒക്കെ വരാൻ തുടങ്ങി കാരണം അത് അത് ഷാമ്പു കെമിക്കൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് തോന്നണു അത് കാരണം മുടി കൊഴിച്ചില് കൂടി മുടി പിന്നെ വളരാണ്ടായി അതുപോലെ അതുമൂലം സൈഡ് ഇഫക്റ്റ്സ് ആയിട്ട് അലർജി ഒക്കെ വരാൻ തുടങ്ങി അത് ഷാമ്പു ഉപയോഗിക്കുന്തോറും മുടിയുടെ തിക്ക്നസ് ഒക്കെ കുറഞ്ഞു വന്നു അതു നമ്മള് ഞാൻ ഷാമ്പു ഉപയോഗിക്കാത്ത ഒരു പേഴ്സൺ ആണ് പക്ഷേ എന്നിട്ടും കൂടി എന്റെ ഫ്രണ്ട് റെക്കമന്റ് ചെയ്ത പ്രകാരമാണ് ഷാമ്പു വാങ്ങി ഉപയോഗിച്ചത് പക്ഷേ ഒരു ഒരു ഗുണവുമില്ല ആ ഷാമ്പു ഉപയോഗിക്കുന്ന കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അത് ഉപയോഗിച്ചാൽ അതിനുള്ള സൈഡ് എഫക്ട് വരികയുള്ളൂ അല്ലാണ്ട് ഉപകാരമൊന്നുമില്ല അപ്പോൾ നമ്മള് ഈ ഷാമ്പു വാങ്ങി ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്